ആ പറഞ്ഞോ ഓക്കെ ഇപ്പം ഇന്ന് ഏത് ഡേറ്റ് ആയിരിക്കും ഓക്കെ നമുക്ക് വേണമെങ്കിൽ തേസ്ഡേ ആയിരുന്നു എന്നാൽ വേണമെങ്കിൽ നേരത്തെ ഒരു ലീവ് എടുക്കാം ഏ പിന്നെ പിന്നെ അപ്പോൾ ഞാൻ ഓർത്തു തേസ്ഡേ അല്ലെങ്കിൽ സൺഡേ അല്ലെങ്കിൽ സാലറി നമുക്ക് രണ്ടുദിവസം ഫ്രൈഡേയും സാറ്റർഡേയും നമുക്ക് വേണമെങ്കിൽ പുറത്ത് പോയിട്ട് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോറ് ചെയ്യാം ശനിയാഴ്ച രാവിലെ എത്തും അല്ലേ ഇത് ഇത് എവിടെയാ അറിയോ ഏത് സ്ഥലം അറിയുമോ മുംബൈയില് അല്ലേ ഓക്കെ നമ്മൾ തേസ്ഡെ ഇറങ്ങിയാൽ നമ്മൾ അവിടെ രാവിലെ എത്തും ഓക്കെ അങ്ങനെയാണെങ്കിൽ നിനക്ക് വേറെ നമ്മൾ വിളിക്കുന്നുണ്ടോ ഇപ്പം ഓ രണ്ട് ടിക്കറ്റ് ഉള്ളൂ അല്ലേ ഓക്കെ ഓക്കേ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം ട്രെയിൻ എങ്ങനെ പോവണം

ഉം അത് ശരിയാ തിരിച്ച് നമുക്ക് സൺഡേ തന്നെ മണ്ടേ തിരിച്ചു വരണോ എങ്ങനെയാ ആ അത് ഓക്കെയാ ആ അത് പക്ഷെ തിരക്ക് ഉണ്ടാവില്ലേ വീക്കെൻഡ് കാരണം ഉം ഉം നമുക്ക് മൺഡേ ഉച്ചയ്ക്കല്ലേ ഓക്കെ എന്നാൽ അങ്ങനെ അങ്ങനെയാവാം നമുക്ക് സമയത്ത് എത്തുമല്ലോ അപ്പോൾ എന്തുവാ നമുക്ക് ഈ ഫു അറേഞ്ച്മെൻ്റ് എന്തെങ്കി ചെയ്യണോ വേണ്ടല്ലോ ഓക്കെ ഓക്കെ ആ നമുക്ക് എത്രയാവും വണ്ടിക്ക് അറിയുമോ അറിവുണ്ടോ

രണ്ടായിരം മൂവായിരം ആ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഉം ഓക്കെ ആ എന്നാൽ ശരി നമുക്കങ്ങനെ പോവാം ആ പിന്നെ എപ്പോഴാ എത്തേണ്ടത് ഒന്ന് കൺഫോം കൺഫോമ് ചെയ്യണെ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ എന്നാൽ ശരി നമുക്ക് അവിടെ വെച്ച് കാണാം ഓക്കെ